നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംസ്കാരങ്ങൾ എങ്ങനെ സ്വാധീനികരിക്കുന്നു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നതിലുപരിയായിട്ട് പണ്ടത്തെ കാലത്ത് നമുക്കറിയാം ഗുരുകുല സമ്പ്രദായ വിദ്യാഭ്യാസങ്ങളായിരുന്നു കാരണം ആ ആ ഒരു ടൈമിൽ എന്താ സമൂഹത്തിൽ മുന്നോട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ഭരിച്ചിരുന്ന ഗുരുകുലന്മാർ അല്ലെങ്കിൽ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ വളരെയധികം എന്താ തരം തിരിവുകളുണ്ടായിരുന്നു അതിൽ ഏറ്റവും മോളിൽ നിൽക്കുന്ന ആ ഒരു വിഭാഗത്തിന് മാത്രമേ വിദ്യാഭ്യാസം കിട്ടിയിരുന്നുള്ളൂ ആ ഒരു ആ ഒരു കാലത്തെ എന്താ ആ ഒരു കാലത്തെ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിലവിൽ വന്നിരുന്നത് അപ്പം ആ ഒരു കാലത്തെ ആൾക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുകയാണെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമായിരുന്നില്ല അല്ലെങ്കിൽ അറിവ് അറിവ് സ്വായക്തമാക്കാനുള്ള സ്വാതന്ത്ര്യം അത് സമൂഹത്തിലെ ഉയർന്ന തട്ടുകളിൽ തട്ടുകളിൽ വസിച്ചിരുന്ന ആ ഒരു ജനതക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നത്തെ സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇപ്പം എന്താ സമൂഹത്തിൽ തിരിവുകളില്ല എന്ന് പറയുമ്പോൾ സെപ്പറേഷൻസ് ഇല്ല പാർശവൽക്കരിക്കപ്പെട്ടവർ വളരെയധികം കുറഞ്ഞിരിക്കുന്നു ഇപ്പം സ്ത്രീകൾക്കായാലും ഒരുപോലെ വിദ്യാഭ്യാസം ഇപ്പം സമൂഹത്തിൽ ശൂദ്രർ വൈശിർ വൈശ്യർ ക്ഷത്രിയർ ബ്രാഹ്മണർ എന്നും എന്ന് പറഞ്ഞുള്ളൊരു പണ്ടത്തെ പോലുള്ളൊരു തരംതിരിവ് ഇപ്പം കാണാൻ സാധിക്കില്ല കാരണം ഇന്ന് എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം ഗവൺമെൻ്റ് എന്താ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഉള്ള ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഉള്ള ക്ലാസുകൾ എല്ലാ കുട്ടികളും നിർബന്ധിത വിദ്യാഭ്യാസമാണ് കാരണം ആ വിദ്യ സ്വായക്തമാക്കിയിരിക്കണം കാരണം സമൂഹത്തിൽ ഈ ഒരു ഭൂമിയിൽ ജനിച്ച് വീഴുന്ന എല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും വിദ്യാഭ്യാസമില്ലാത്തവരായി തീരരുത് എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് മുമ്പോട്ട് വന്നതിൻ്റെ ബലമായാണ് ഈ ഒരു വിദ്യാഭ്യാസം എന്നത് നമുക്കെല്ലാവർക്കും സ്വായക്തമാക്കാൻ പ്രാഥമിക പ്രാഥമിക വിദ്യാഭ്യാസം നമുക്കെല്ലാവർക്കും സ്വായക്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സംസ്കാരങ്ങൾ എന്ന് പറയുമ്പം എന്താ നമുക്കറിയാം ഈ ഇന്ത്യയിൽ ഇത്രയധികം സംസ്ഥാനങ്ങളുണ്ടെങ്കിലും അതിൽ കേരളത്തിൻ്റെ സംസ്കാരം വ്യത്യസ്തമാണ് കാരണം ഇവിടെ എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാവരും ഒരു ഒരുമയും കൂട്ടായ്മയും നിലനിർത്തുന്നവരാണ് അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും മലയാളികൾ എന്ന് പറയുന്നത് അവരവരുടെ സംസ്കാരം അല്ലെങ്കിൽ ഓണം ഓണം വിഷു ക്രിസ്മസ് അങ്ങനെ പൊതുവായ തനതായ രൂപങ്ങൾ അല്ലെങ്കിൽ തനതായ ആഘോഷങ്ങളെല്ലാം ആഘോഷിച്ച് വരുന്നൊരു ആഘോഷിച്ച് വരുന്നൊരു കൂട്ടരാണ് മലയാളികളെന്ന് പറയുന്നത് അതുപോലെത്തന്നെ എന്താ ഒരു സ്വീകരണ മനോഭാവം ഉള്ളൊരു ഒരു ഒരു ഒരു സമൂഹമാണ് കേരളത്തിലുള്ളവർ കാരണം വെൽക്കമിംഗ് ആയിരിക്കും അതിഥി ദേവോ ഭവ എന്നാണ് ഇവിടുള്ളവരെ എല്ലാവരും പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കുന്നത് കാരണം അതിഥികളെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളവർക്ക് ദൈവത്തിന് സമവാണ് അവരെ നോക്കുകയും അവരെ പരിചരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിലെ ആളുകൾ ഒരു ഒരു എന്താ ഒരു പ്രാഥമിക മര്യാദയായിക്കാണുന്നു അവ അവയോട് കേരളത്തിലുള്ളവരെന്നും നീതി പുലർത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ കാര്യം മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഇടുക്കിയാണ് അവിടെ നിർബന്ധിത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാകണെമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അത് സംസ്കാരങ്ങളുടെ പേരിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണികളുടെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ പേരിലോ അത് മാറ്റിനിർത്തപ്പെടേണ്ട ഒന്നല്ല കാരണം കാരണം എന്താ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമേറിയ ഒന്നാണ് അറിവ് എന്ന് പറയുന്നത് ആ അറിവ് സ്വായക്തമാക്കാൻ നമുക്ക് എന്താ എന്തൊക്കെ ചെയ്യാനാവും പക്ഷെ അത് അതൊന്നും പണ്ടത്തെ എന്ന് പറയുമ്പം പുരാതനകാലത്തെ ആളുകളുടെ ആളുകളുടെ ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ സമൂഹത്തിലുള്ളവർ വളരെയധികം നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നത് പുരാതനകാലത്തുള്ള അല്ലെങ്കിൽ പണ്ടത്തെ ആളുകളാണ് അവയെ നമ്മൾ ഇന്നും നന്ദിയോട് തന്നെ സ്മരിക്കണം സംസ്കാരങ്ങൾ എന്നതിനുപരിയായിട്ട് ഈ സംസ്കാരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ നാളുകളായി കൈമാറി കൈമാറി വരുന്ന ഒരു പണ്ട് തൊട്ടുള്ള ഒരു ഒരു ഒരു തുടർച്ചയാണ് എന്ന് വേണം നമുക്ക് പറയാൻ ആ തുടർച്ച ഇന്നും നമ്മൾ പിന്തുടരുന്നുണ്ട് എന്നിരുന്നാലും അത് വിദ്യാഭ്യാസത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സുഖമമായ നടപ്പിന് തടസ്സം വരുത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം വിദ്യാഭ്യാസം എന്നത് ഏതൊരു പൗരൻ്റെയും അവകാശമാണ് അത് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല പുരാധനകാലത്ത് അങ്ങനെ പല അധികം വളരെയധികം വിഭജിക്കപ്പെട്ടിരുന്നു സമൂഹം എന്നാൽ ഇന്ന് അങ്ങനെയല്ല സമൂഹം ഇന്ന് ഒന്നാണ് സമൂഹത്തിലുള്ളവരും സമൂഹത്തിൽ വസിക്കുന്നവരും അതുപോലെത്തന്നെ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ജനനം മുതൽ മരണം വരെ നമ്മളൊരു നമ്മളൊരു സിസ്റ്റത്തിലാണ് നമ്മൾ ഇപ്പം സാമൂഹ്യനീതി എല്ലാവർക്കും ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം